നമ്മളുടെ വിനോദവൃത്തിയെ ട്രാവല്ലിങ്ങിന് സഹായിക്കല് വീട്ട്കാര് സഹായിക്കലക്കെ ഉണ്ട് വീട്ടുകാര്ക്കും താല്പര്യം തന്നെയാണ് യാത്ര പോകാനൊക്കെ അപ്പം പെങ്ങന്മാരും അളിയമ്മാരുമൊക്കെ യാത്ര പോകലുണ്ട് ഇപ്പോൾ വെക്കേഷനില് ഇപ്പോൾ ഊട്ടി കൊടൈയ്ക്കനാല് അവിടെ മൈസൂര് ഒക്കെ പോയി കറങ്ങിയിരുന്നു പിന്നേ ഇപ്പോൾ അടുത്തായിട്ട് നമ്മള് പിന്നേ ഉത്തർപ്രദേശ് നമ്മുടെ രാമക്ഷേത്രം ഇപ്പം പൂർത്തി ആയതാണല്ലൊ നമ്മുടെ വലിയ സൊപ്നായിരുന്നല്ലൊ രാമക്ഷേത്രം അവിടെക്ക് പോകാനുള്ള പ്ലാനുണ്ട് ഫാമിലിയായിട്ടും പോകാനുള്ള പരിപാടിയാണ് പിന്നെ ഈ യാത്ര ചെയ്യാന് വീട്ട്കാര്ക്ക് എല്ലാവര്ക്കും താല്പര്യമാണ് യാത്ര ചെയ്ത് ഒര് എന്റർട്ടെയ്ന്മെൻറ്റാണ് നമ്മളുടെ കൂട്ടുകാരുടേയും എൻറ്റേയും ഒക്കെ അപ്പോൾ കൂട്ടിന് നമ്മളുടെ പെങ്ങന്മാരും പെങ്ങന്മാരുടെ കുട്ടികളെ ഒക്കെ കൂട്ടിയിട്ടാണ് പോവല് ഇപ്പോൾ അടുത്ത ട്രിപ്പ് ഒന്നിച്ചൊര് ഒര് പത്തിരുപത്തഞ്ചാള്ക്കാര് ഒന്നിച്ച് ഒരു വണ്ടിയെടുത്തങ്ങനെ പോകാനുള്ള പരിപാടിയാണ് അത് അധികം വൈകാതെ ഉണ്ടാകും പിന്നേ എല്ലാവര്ക്കും നല്ലൊരു മാനസികമായിട്ടൊര് സന്തോഷം കിട്ടുന്നതാണ് യാത്ര പോകുമ്പോളൊക്കെ എല്ലാവര്ക്കുമൊന്ന് ഉഷാറാകും അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുക വീട്ട്കാരെല്ലാവരും നല്ല സ പിന്തുണയ്ക്കാറുണ്ട് ആ അടുത്ത ഞങ്ങള് കാശിക്ക് പോകാനുള്ളൊരു പരിപാടി ഉണ്ട് കാശി നമ്മുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കും അച്ചയ്ക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്